എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതായത് പത്രംന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മലയാള മനോരമയാണ് പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പത്രം വായിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ മാതൃഭൂമി അതുപോലെ തന്നെ പിന്നെ ദേശാഭിമാനി അങ്ങനത്തെ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ട്ടം പിന്നെ മലയാള മനോരമയാണ് കാരണം അത് കാണുമ്പോൾ അതായത് നമുക്കിപ്പോൾ ഓരോ പിക്ചറുകളും അതായത് അതിലുള്ള എഴുത്തും അതായത് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വെളിച്ചം പോലെയൊക്കെയാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇരുണ്ട് കൂടിയ ആ ഒരു ഇതാണ് ദേശാഭിമാനി അങ്ങനത്തെ ഒന്നും എനിയ്ക്ക് വലിയ താൽപ്പര്യം ഇല്ല അതില് ഫോട്ടോ ക്ലാരിഫൈ അതായത് ക്ലിയർ ആയിരിക്കില്ല പിന്നെ അങ്ങനെള്ള അതായത് ആ എഴുത്തുകള് എഴുത്തുകളെല്ലാം കാണാൻ തന്നെ നമുക്ക് മനോരമ ഇതിൽ തന്നെയാണ് ഏറ്റവും ഭംഗി എഴുത്തുകളും കാര്യങ്ങളൊക്കെ കാണാൻ അതുകൊണ്ട് തന്നെ ഞാന് വീട്ടില് വരുത്തുന്നുണ്ടെങ്കില് മലയാള മനോരമ പത്രമാണ് വരുത്താറ് മാതൃഭൂമി അങ്ങനെയുള്ള അതൊക്കെ എവിടെങ്കിലും പോകുമ്പോൾ നമ്മളെന്തെങ്കിലും വാർത്ത കാണണം അതായത് വാർത്ത ഒന്ന് വായിക്കണന്ന് വന്നിട്ടുണ്ടെങ്കില് അതായത് അതേയുള്ളൂ എങ്കില് അതാണ് വായിക്കാറ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ട്ടം മലയാള മനോരമ തന്നെയാണ് എനിക്കത് വായിക്കാൻ ഇഷ്ടമാണ് അതില് നമുക്ക് ഒന്നാമത് എല്ലാ വാർത്തകളും കറക്റ്റാണെങ്കില് നമുക്ക് അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരിഷ്ട്ടം തോന്നും അതായത് വായിക്കാൻ തോന്നും വായിക്കാൻ തോന്നുന്നത് മലയാള മനോരമ തന്നെയാണ്